സ്ക്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഏറ്റവും ഇഷ്ടപെട്ട ലാംഗ്വേജ് മലയാളമായിരുന്നു വേറൊന്നും കൊണ്ടല്ല നമ്മുടെ മാതൃഭാഷ ആയതുകൊണ്ടും പിന്നെ പഠിപ്പിക്കുന്നത് ടീച്ചറും അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റർടൈൻമെൻ്റായിട്ടാണ് നമുക്ക് ക്ലാസ്സ് കാര്യങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ എല്ലാവർക്കും അത്രയും സിംപിളായിട്ടു മനസ്സിലാകാനും പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും വായിക്കാനുള്ളതാണെങ്കിലും കഥകളും സ്റ്റോറീസും ഒക്കെ ആയിട്ട് വളരെ ഡിഫറൻ്റായിട്ട് ഉള്ള ഒരിതായതുകൊണ്ട് പഠിക്കാനും ഭയങ്കര സിംപിളായിരുന്നു പിന്നെ ക്ലാസ്സിൽ ഫുൾ ടൈം ടീച്ചറ് ഓരോ വർക്കും കാര്യങ്ങളും ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഥകൾ പറഞ്ഞ് തരുന്നതും ആ പറഞ്ഞ് തരുന്ന സ്ലാങ്ങും ഒക്കെ കൊണ്ടും കഥകളൊക്കെ ആണെങ്കിൽ പറഞ്ഞ് തരുന്നതും അത് എക്സ്പ്ലയിൻ ചെയ്തു തരുന്നതും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ എൻ്റർടൈൻമെൻ്റുകളായിരുന്നു അതുകൊണ്ടുത്തന്നെ മലയാളം എന്നു പറയുന്നൊരു ലാംഗ്വേജിനോട് നമ്മുടെ മാതൃഭാഷയായതു കൊണ്ടു തന്നെ വല്ലാത്തൊരിത് ഉണ്ടായിരുന്നു അതിൻ്റെ പുറകെ അത് പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ ഒരു കഴിവും കൂടി ഉള്ളതുകൊണ്ട് അപ്പം അത് ക്ലാസ്സിലിരിക്കാനും ഭയങ്കര ഇൻ്ററസ്റ്റഡ് ആയിരുന്നു പിന്നെ ഇപ്പോൾ എല്ലാവർക്കും തന്നെ മലയാളം എന്നു പറയുമ്പോൾ അത്രയും സിംപിളായിട്ടു പഠിക്കാനും അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര അധികം ഇഷ്ടമായിരുന്നു മലയാളം എന്നു പറയുന്ന ഒരു ക്ലാസ്സിൽ പോകുമ്പോൾ ഫുൾ ടൈം എൻ്റർടൈൻമെൻ്റഡായിട്ട് എല്ലാം ഓരോ കഥകളായിട്ടും പാട്ടുകളായിട്ടും ഒക്കെ കവിതകളൊക്കെ ആയിട്ടും എല്ലാം പറഞ്ഞു തരുമ്പോൾ അതിനെക്കുറിച്ച് കേൾക്കാനും ഓരോ ഒന്നും ആയ ഓരോ ഹിസ്റ്ററീസും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമ്മുടെ കവികളുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലെ എൻ്റർടൈൻമെൻ്റഡായിരുന്നു ക്ലാസ്സുകൾ മൊത്തം പിന്നെ ടീച്ചേഴ്സിനെ ഓരോന്നിനെയും എക്സ്പ്ലയിൻ ചെയ്തു തരുന്ന കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരോ കുര്യോസിറ്റിയും കാര്യങ്ങളൊക്കെ കൂടി വരുന്നതും എങ്ങനെയാണ് അത് ഓരോ നമ്മുടെ പണ്ടുകാലത്തുണ്ടായിരുന്നതും അങ്ങനെ കുറെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്